ഹലോ നമസ്ക്കാരം വരൂ ആ ശബരീഷിൻ്റെ ഭാ ഇരിയ്ക്കു ഇരിയ്ക്കു മാം ഇരിയ്ക്കു ഇരിയ്ക്കു സർ സോറി ഇരിയ്ക്കു സർ ഓക്കെ ആ മാർക്കൊക്കെ കണ്ടു യൂണിറ്റ് ടെസ്റ്റ് ഇപ്പോൾ നടന്ന് നട നടന്നുക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാർക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞോ ശബരീഷിൻ്റെ മാർക്കൊക്കെ അറിഞ്ഞില്ലെ ആ വളരെ പക്ഷെ വളരെ കുറവാണ് മാർക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വളരെ നല്ല കുറവാണ് ഇപ്പം മാക്സ് തന്നെയെടുത്തു ഇപ്പോൾ ഞാൻ പഠിപ്പിക്കണത് മാക്സാണ് മാക്സിലൊക്കെ വളരെ ജസ്റ്റ് പാസ്സ് ജസ്റ്റ് പാസ്സൊന്നും എവിടെ എവിടെയും എത്തില്ല ജസ്റ്റ് പാസ്സായിക്കഴിഞ്ഞാൽ ഉം അങ്ങനെയില്ല പിന്നെ പിന്നെ ശബരീഷിനെക്കുറിച്ച് കുറെ കംപ്ലൈൻറ്റ്സ് ഇണ്ട് കേട്ടോ ഏ ഓരോരോ ടീച്ചേഴ്സ്മ്മാര് മീൻസ് മോസ്റ്റ്ലി എല്ലാ ടീച്ചേഴ്സ്മ്മാര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ക്ലാസ്സില് ഫുള്ള് സംസാരാണ് പിന്നെ ഹോംവർക്ക്സൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ റെഗുലറായിട്ടൊന്നും ചെയ്തു കൊണ്ടുവരാറില്യ എന്നാണ് കേട്ടത് എൻ്റെ ഇപ്പൊൾ സബ്ജെക്ട് എൻ്റെ സബ്ജെക്ടിൽ കുഴപ്പമില്ല ഞാനങ്ങനെ ഹോംവർക്ക്സ് കൊടുക്കാറില്ല മോസ്റ്റ്ലി അപ്പോൾ ഹോംവർക്ക്സിൻ്റെ കാര്യം കുഴപ്പമില്ല പക്ഷെ കൊടുത്ത് കുറച്ച് സംസാരം കുറച്ച് അധികവാണ് പിന്നേ മ് പിന്നെ ക്ലാസ്സ് കട്ട് ചെയ്യണുണ്ട് അത് ഞാൻ ഇന്നാ ഞങ്ങള് പാരൻസിനെ അറിയിച്ചീരുന്നു രണ്ട് ദിവസം ആ ഉണ്ട് ഉണ്ട് സർ രൺ ഇപ്പോൾ ടു ത്രീ ടൈംസ് ഇതേപോലെ ക്ലാസ്സ് കട്ട് ചെയ്തിരുന്നു അതിപ്പോൾ പിടിച്ചിട്ടിപ്പോൾ ടു ത്രീ ടൈംസാണ് ഇനി അ നമ്മൾ അറിയാതെ ഇനി പിന്നെ എത്ര പ്രാവശ്യം ചെയ്തിരിക്കുന്നു അറിയില്ല

മ് അപ്പോൾ അത് അത് കുറെ ആ പിന്നെ എ എൻ എസ് എസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന് അതൊക്കെ നല്ലകാര്യം തന്നെയാണ് അതിന അതിനായിട്ട് ക്ലാസ്സൊക്കെ മിസ്സ് ആവണൊണ്ട് അതൊക്കെ അറിയാം പക്ഷെ അപ്പളും നമ്മൾ പഠിത്തത്തിനോടും ഒന്ന് ശ്രദ്ധിക്കണം

ആ അവൻ അവൻ പറയാറുണ്ട് എന്നോട് പറയാറുണ്ട് പക്ഷെ അപ്പളും നമ്മള് ശ്രദ്ധിക്കണം ഒന്നുംകൂടി ശ്രദ്ധിക്കണം പിന്നെ പ്രിൻസിപ്പ്ളൊന്ന് കാണാൻ പറഞ്ഞിരുന്നൂട്ടോ ഈ ക്ലാസ് കട്ട് ചെയ്തതിൻ്റെ കുറച്ച് ന്നെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നെ അപ്പോൾ അത് അതുകൊണ്ട് പ്രിൻസിപ്പിളിനൊന്ന് ഒന്ന് ക കണ്ടിട്ട് പോയാമതി ആ ആ ആ പിന്നെ ആ ഓ ഇല്ല ആ അതൊക്കെ ഞാൻ വരാം അത് ഓക്കെ അത് ശരിയാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ സർ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സിനോ ഒന്ന് കണ്ടിട്ട് പിന്നെ പ്രിൻസിപ്പൽൻ്റെ അടുത്തേക്ക് പോകാം കെട്ടോ ഓക്കെ ഓക്കെ താങ്ക്യൂ സർ